ലോക ടൂറിസം മാപ്പിൽ അല്ലെങ്കിൽ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ ഏറ്റവും കണ്ടിരിക്കേണ്ട നിർബന്ധമായും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിലൊന്ന് എന്ന് പറയുന്നത് നമ്മുടെ കേരളമാണ് കേരളത്തിനെ ഈ വിനോദ സഞ്ചാര കേന്ദ്രത്തിൽ ഇത്രയും ഉയർച്ചയിലേക്ക് എത്തിച്ചത് അവിടുത്തെ ഭൂപ്രകൃതി മാത്രമല്ല അവിടെയുള്ള മത സാംസ്കാരിക കായിക പരിപാടികളും ഒക്കെ കൊണ്ടാണ് അതിൽ നമ്മുടെ കണ്ണൂർ ജില്ലാന്നു പറയുന്നത് ഏറ്റവും പ്രധാന കണ്ണൂർ കാസർഗോഡ് അങ്ങനെ മലബാർ ഏരിയ എന്ന് പറയുന്നത് പ്രധാന പങ്കു വഹിക്കുന്നുണ്ട് അതിനു പ്രധാന പങ്കു വഹിക്കാൻ അതിനേറ്റവും കൂടുതൽ കാരണമായത് നമ്മുടെ തെയ്യം തന്നെയാണ് തെയ്യം കണ്ണൂർ ജില്ലയെ അപേക്ഷിച്ച് തെയ്യമെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആഘോഷമാണ് എല്ലാ വർഷവും എല്ല എല്ലാ ഒരു വർഷത്തിൽ എല്ലാ ദിവസവും മുത്തപ്പൻ വെള്ളാട്ട് മുത്തപ്പൻ തെയ്യം നടക്കുന്നൊരു സ്ഥലമാണ് നമ്മുടെ പറശ്ശിനിക്കടവ് എന്നു പറയുന്നത് ഒരുപാട് സഞ്ചാരികൾ അത് ഇന്ത്യയിൽ നിന്നാവട്ടെ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് നിന്നാവട്ടെ ഒരുപാട് സഞ്ചാരികൾ ഈ പറശ്ശിനിക്കടവിലെ മുത്തപ്പനെ കാണാനെത്തുന്നുണ്ട് അതുപോലെ തന്നെ ഒരു എന്താ പറയാ ഒരു തെയ്യക്കാലം തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലെ പല സ്ഥലങ്ങളിലും മലബാറിലെ പല സ്ഥലങ്ങളിലും പിന്നെ തെയ്യക്കാലമാണ് എന്താ ഓരോ ഉത്സവ ഓരോ കാവുകളിൽ തെയ്യം കെട്ടി ആടുകാണ് അപ്പോൾ ഇതൊക്കെ കാണാൻ വേണ്ടിട്ട് ഒരുപാട് യാത്രക്കാർ അല്ലേ ഒരുപാട് ആൾക്കാർ ഭക്ത ജനങ്ങൾ ഇവിടെ വരുന്നുണ്ട് തെയ്യം എന്നു പറയുന്നത് എന്താ പറയാ ഒരു സാംസ്കാരിക പൈതൃകത്തിന് ഒരിതാണ് ഉദാഹരണാണ് തെയ്യം എന്നു പറയുന്നത് തെയ്യം കാണാൻ വേണ്ടിട്ട് ഒരുപാട് ദൂരെ നിന്നും ആൾക്കാർ ഇവിടെ നമ്മുടെ മലബാർ ഏരിയയിൽ കണ്ണൂർ കാസർഗോഡ് ഏരിയയിൽ എത്തുന്നുണ്ട് അതും കൂടുതലും എന്താ പറയാ ഇംഗ്ലണ്ടിൽ നിന്നും വരുന്നവർ അമേരിക്കയിൽ നിന്ന് വരുന്നവർ പുറം രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരാണ് കൂടുതലും ഇത് ഇങ്ങനെ വരുന്ന സഞ്ചാരികൾ ഇങ്ങനെ നമുക്ക് പുറത്തുന്നു കിട്ടുന്ന സഞ്ചാരികളായാലും ഇപ്പോൾ കേരളത്തിന് പുറത്തായാലും ഇന്ത്യക്ക് പുറത്ത്ന്നു വരുന്ന സഞ്ചാരികളായാലും നമ്മളെ കേരളത്തിനെ എന്താ പറയാ ടൂറിസം വികസനത്തിൽ ഒരു പ്രധാന പങ്കു വഹിക്കുന്നുണ്ട് ടൂറിസം ഒരുപാട് ഡെവലപ്പാകാൻ ഒരുപാട് വികസിക്കാൻ കാരണമായത് ഈ തെയ്യം അതുപോലെ തന്നെ സാംസ്കാരിക ഉത്സവങ്ങളാണ് ഒരുപാട് ഉത്സവങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തെയ്യമെന്നു പറയുന്നത്